ഞങ്ങളുടെ പ്രദേശത്ത് സാധാരണെയുണ്ടാക്കാറുള്ള പാരമ്പരാഗതമായ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് ആദ്യം അവിയലുണ്ടാക്കാം മുരിങ്ങക്കായ് കയ്പ്പ പയർ ക്യാരറ്റ് ചേന നേന്ത്രക്കായ അത് കുറച്ച് നീളത്തിലരിഞ്ഞ് എല്ലതും അരിഞ്ഞിട്ട് മഞ്ഞൾ പൊടി ഇട്ടിട്ട് വേവിക്കുക എന്നിട്ടത് വെന്ത് കഴിഞ്ഞിട്ട് തൈരൊഴിക്കുക എന്നിട്ട് തേങ്ങ പച്ചമുളക് കറിവേപ്പിൻ്റെ ഇലയിട്ട് ചതക്കുക തൈരൊഴിക്കുക അങ്ങനെ നല്ലവണ്ണം ഇളക്കി വേവിച്ചിട്ട് വാങ്ങി വെച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അവിയൽ പിന്നെ ഞങ്ങൾ സാമ്പാറുണ്ടാക്കും പരിപ്പ് വേവിച്ചിട്ട് കഷ്ണങ്ങളിട്ട് ഉള്ളി തക്കാളി വെണ്ടക്ക ക്യാരറ്റ് കുമ്പളം മത്തം എല്ലാ കഷ്ണങ്ങളിട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ തേങ്ങാ വറത്തരച്ചിട്ട് മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ചൂടാക്കി തേങ്ങാ വരത്തറക്കണേൽ കായം ഉലുവ കരിയേപ്പിൻറ്റെ ഇല ചുവന്നുള്ളി എല്ലതുട്ടിട്ട് ഞങ്ങൾ വറക്കും എന്നട്ടിങ്ങനെ സാമ്പാറുണ്ടാക്കാം പിന്നവിടെ ഞങ്ങൾക്ക് ചക്കയൊക്കെ കിട്ടും അപ്പം ചക്ക എലിശ്ശേരിയുണ്ടാക്കും ചക്ക കഷ്ണങ്ങളാക്കി മുറിച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടീട്ടിട്ട് വേവിക്കും പിന്നെ തേങ്ങാ ചതച്ചിടും തേങ്ങേൽ ജീരകം ചുവന്നുള്ളീം കരിവേപ്പിൻറ്റെ ഇലയിടും അങ്ങനെ ചക്കെളിശ്ശേരി ഉണ്ടാക്കും പിന്നെ തേങ്ങയിൽ വറത്തിടും കടുകും കരിയേപ്പിൻറ്റെലേം മുളക് പൊട്ടിച്ചിടും അങ്ങനെ എലിശ്ശേരീണ്ടാക്കും പിന്നെ ഉപ്പേരി പയറുപ്പേരിയുണ്ടാക്കും നീളത്തിൽ മുറിച്ചിട്ട് ഉള്ളീം മുളകും കുത്തി വറവിടും പിന്നെ പൂളാ മുതിര പൂളേം മുതിരേണ്ടാക്കും മുതിര വറത്തിട്ട് വേവിക്കും പിന്നെ മൂള പൂള കഷ്ണങ്ങളാക്കീട്ട് അതിൽ രണ്ട് രണ്ടുവിട്ട് വേവിച്ചിട്ട് ഉള്ളീം മുളകും കുത്തി വറവിടും അങ്ങനത്തൊരു കറി രസം പുളീം തക്കാളീം പിന്നെ വെളുത്തുള്ളി കരുമുളക് മല്ലി എന്ത് കായം എല്ലതും കൂട്ടീട്ട് രസമുണ്ടാക്കും പരിപ്പിൻ്റെ വെള്ളവൊഴിച്ചിട്ടാണ് ഉണ്ടാക്കൽ പിന്നെ കടുകും മുളകും വറവിടും പിന്നെ ഓലനുണ്ടാക്കും വൻപയറും കുമ്പളവും കുമ്പളം കനം കുറഞ്ഞരിഞ്ഞിട്ട് പച്ചമുളക് ചീന്തി ഇട്ടിട്ട് വൻപയർ ആദ്യം വേവിക്കും എന്നിട്ട് പിന്നെ കുമ്പളം ഇട്ടിട്ട് രണ്ടും കൂടി വേവിച്ചിട്ട് പച്ചവെളിച്ചെണ്ണയൊഴിക്കും പിന്നെ പുളി പുളി ഇഞ്ചിയുണ്ടാക്കും പുളി നല്ലോണം വേവിച്ചിട്ട് പുളി കലക്കി പുളി കുറുങ്ങനെ ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കും ശർക്കരയിട്ട് ഒന്നും കൂടി നല്ലോണം വേവിച്ച് പിന്നെ ഇഞ്ചി പച്ചമുളക് കരിയേപ്പിൻറ്റെല ഇതൊക്കെ കടുകും വറത്തിട്ട് അതിലേക്ക് മൂപ്പിച്ചിട്ട് ഇടും അച്ചാറുണ്ടാക്കും നാരങ്ങ ചെറുനാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി അച്ചാർ നല്ലെണ്ണ ഒഴിച്ചിട്ട് കാരിയേപ്പിൻറ്റെലേം കടുകും കായപ്പൊടീം മുളക് പൊടീം ഒക്കെ ചൂടാക്കീട്ട് അതിലേക്ക് നാരങ്ങ നുറുക്കിയതിലെക്ക് അച്ചാറാക്കും അതിലെക്കിടും പിന്നൊരിത്തിരി സുർക്കൊഴിക്കും പിന്നെ കറുതേം പൂളേം ചേമ്പും തണ്ടും അത് നല്ല രസമുണ്ടാവും അയില്ന്തന്നെ കറുത നീളത്തിൽ നുറു നുറുക്കുക പൂള കഷ്ണങ്ങളാക്കീട്ട് ചേമ്പ് തണ്ടും എടുത്ത് ചേമ്പും തണ്ട് ആദ്യം ഒരു ഹൂക്കൽ കൂക്കും പിന്നെ പൂളേം കറുതേം എല്ലാതും പാടെ ഒന്നിച്ചിട്ടിട്ട് കടുകും കരിയേപ്പിൻറ്റെലേം ഇട്ടിട്ട് വറക്കും മാമ്പഴ പുളിശ്ശേരീണ്ടാക്കും മാങ്ങയുള്ള കാലത്ത് നാടൻ മാങ്ങ നാടൻ മാങ്ങ ഒരിത്തിരി മഞ്ഞപ്പൊടീം ഒരിത്തിരി മുളക് പൊടി ഇട്ടിട്ട് വേവിക്കും പിന്നെ അതിൽ തേങ്ങയരക്കും അതിലൊരിത്തിരി പച്ചക്കടുകും ഒരിത്തിരി ജീരകോം അരച്ചിട്ട് തൈരൊഴിച്ചിട്ട് അങ്ങനെ മാമ്പഴ പുളിശ്ശേരി കടുകും കരിയേപ്പിൻ്റലക്കിട്ട് വറത്തിടും പിന്നെ പായസ്സം ഗോതമ്പ് പായസ്സമുണ്ടാക്കും ഗോതമ്പ് വേവിച്ചിട്ട് ശർക്കര ഉരുക്കി പാ ഒഴിക്കും പിന്നെ പ പാൽ പിഴിഞ്ഞ് തേങ്ങാപ്പാൽ അത് ഒന്നാം പാൽ എടുത്ത് വെയ്ക്കും രണ്ടാം പാലും മൂന്നാം പാലും ഒഴിച്ചിട്ട് നല്ലൊണം തിളപ്പിച്ചിട്ട് പിന്നെ ശർക്കര ഉരുക്കിയൊഴിക്കും വാങ്ങാൻ നേരത്ത് ആദ്യത്തെ പാലൊഴിക്കും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി പാ പിന്നെ നെയ്യിൽ വറവിടും പിന്നെ പൂളേണ്ടങ്ങൾ കൊണ്ടാട്ടമുണ്ടാക്കും പൂള ഒരു വേവിച്ചിട്ട് കുറഞ്ഞ വേവിൽ എന്നിട്ടത് നടുവ് മുറിച്ചിട്ട് കുറച്ച് വീതീൽ നുറുക്കും അങ്ങനെ പൂള കൊണ്ടാട്ടമുണ്ടാക്കും പിന്നെ ഞങ്ങൾ മത്തൻ്റെല വെണ്ടക്ക ഇത് നല്ല രസമാണ് മത്തൻ്റെല വെണ്ടക്ക ആദ്യം കുറച്ച് നീളത്തിൽ നുറുക്കീട്ട് അതിൽ പച്ചമുളക് ചീന്തി ഇട്ട് മത്തൻ്റെല അതിൽ കഴുകീടും എന്നിട്ട് രണ്ടാളും കുറച്ച് വെള്ളത്തിൽ വേവിക്കുക എന്നിട്ട് നല്ലവണ്ണം ഇളക്കീട്ട് വെന്ത് വരുമ്പോൾ വാങ്ങി വെച്ചിട്ട് പച്ച വെളിച്ചണ്ണെയൊഴിക്കുക പിന്നെ മുരിങ്ങാത്തോരൻ മുരിങ്ങേൻറ്റെല നല്ലോണം കഴുകീട്ട് കടുക് പിന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ മുരിങ്ങേടും പിന്നെ പച്ചമുളകും വെളുത്തുള്ളീം ചതച്ചിട്ടിട്ട് അങ്ങനെ മുരിങ്ങാത്തോരനുണ്ടാക്കും പിന്നെ മുരിങ്ങ കൊണ്ട് താളിപ്പ് വെളുത്തുള്ളീം ചുവന്നുള്ളീം പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണെക്കെ ഇട്ടിട്ട് മുരിങ്ങ നല്ലവണ്ണം വാട്ടും എന്നിട്ട് പിന്നെ കഞ്ഞി വെള്ളമൊഴിക്കും അങ്ങനെ താളിപ്പുണ്ടാക്കും മോര് കറി കുമ്പളോം ചേനേം വേവിച്ചിട്ട് മഞ്ഞപ്പൊടീം മുളക് പൊടീം ലൈറ്റായിട്ടിടുക കുറച്ച് എന്നിട്ടത് വെന്തിട്ട് മോരൊഴിക്കും പിന്നെ തേങ്ങാ അരച്ചിട്ട് അതിൽ ജീരകമിടും അങ്ങനെ മോരും കറി അത് കടുകും ഉലുവേം മുളക് പൊട്ടിച്ച് കരിയെപ്പിൻറ്റെലേം ഇട്ടിട്ട് അത് വറവിടും പിന്നെ കൂട്ടുകറിയുണ്ടാക്കും ഞങ്ങൾ ചേനേം കായും പരിപ്പ് കടലപ്പരിപ്പ് കടലപ്പരിപ്പാദ്യം വേവിക്കും എന്നിട്ട് ചേനേം കഷ്ണങ്ങളാക്കീട്ട് കായും ഒരേ പോലെ കഷ്ണങ്ങളാക്കും എന്നിട്ടതിലിത്തിരി മഞ്ഞപ്പൊടീം മുളക് പൊടിയിട്ട് വേവിക്കും കുരുമുളകൊരിത്തിരി എന്നിട്ടങ്ങന മുളകും മഞ്ഞളിലത് വേവിച്ചിട്ട് പിന്നെ ഞങ്ങൾ തേങ്ങ വറക്കും തേങ്ങ കൊറേടുത്തിട്ട് നല്ലോണം വറത്ത് കരിയേപ്പിൻറ്റെലേം ഒക്കെ വറത്ത് നല്ലവണ്ണം വറത്തിട്ടിട്ട് നല്ല കുറച്ച് അരക്കുവേം ചെയ്യും പച്ചത്തേങ്ങേരിത്തിരി അരക്ക്വേം ചെയ്യും നല്ലവണ്ണം വറത്ത് കഷ്ണങ്ങളെക്കാട്ടിലും തേങ്ങ വറത്തിട്ട് ഞങ്ങൾ അതിലിടും പിന്നെ കടുകും കരിയെപ്പിൻറ്റെലേം ഇട്ടിട്ട് വറക്കും പിന്നെ പൈനാപ്പിൾ പച്ചടി പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് മഞ്ഞൾപ്പൊടിട്ടിട്ട് ഒരിത്തിരി മുളക് പൊടി ഇട്ട് വേവിക്കും പിന്നെ തൈരൊഴിച്ചിട്ട് അതിൽ കടുകും കടുക് അരക്കും തേങ്ങേൽ കടുക് നല്ലവണ്ണം അരയണം കടുകും തേങ്ങേമ് നല്ലവണ്ണം അരച്ചിട്ട് അതിലൊഴിക്കും ഈ തെ തൈരിലിലാണ് ഞങ്ങൾ അരക്കൽ തേങ്ങ എന്നിട്ട് വെള്ളമില്ലാതെ വേവിച്ചിട്ട് അതിൽ തൈരൊഴിക്കും അരവൂട്ടിട്ട് കടുകും കരിയേപ്പിൻറ്റെലേം ഇട്ട് വറവിടും പിന്നെ ഇഞ്ചി തൈര് ഇഞ്ചിം തേങ്ങേമ് പച്ചമുളകൂട്ടിട്ട് നല്ലവണ്ണം അരക്കും എന്നിട്ട് തൈരൊഴിച്ചിട്ടാണത് ഞാനരക്കൽ എന്നിട്ടങ്ങനെ കടുക് കരിയേപ്പിൻറ്റെലട്ടിട്ട് വറവിടും പിന്നെ ഉണ്ണിയപ്പമുണ്ടാക്കും ചക്ക ഇട്ടിട്ടുണ്ടാക്കും അരിയരച്ചിട്ടുണ്ടാക്കും അരി പൊടിച്ചിട്ടുവുണ്ടാക്കും ഇപ്പധികം അരി അരക്കലാണ് അരി അരച്ച് കുറുന്നനെ അരക്കും അരച്ചിട്ട് ഞാൻ മിക്സിത്തന്നെ ശർക്കര ഉരുക്കീട്ട് ഞാനതിൽ തന്നെ ഒഴിക്കലാണ് പിന്നെത്തിരി ചക്ക വരട്ടി വെച്ചത് ചക്ക ഒരു സ്പൂണ് മതി അത് അതിൽ കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം

അങ്ങനെ ഉണ്ണിയപ്പമുണ്ടാക്കും അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് ഞങ്ങളെല്ലാവരും ഓരോ ഓരോരുത്തരും ഓരോരോ സൈസിലുണ്ടാക്കണത് ഞാനുണ്ടാക്കണത് ഇങ്ങനെയാണ്